ഞാന് എന്നെയാരും നെയ്ത്തൊന്നും പഠിപ്പിച്ചിട്ടില്ല ഞാൻ നെയ്ത്ത് പഠിച്ചിട്ടുമില്ല തയ്ക്കാന് അത്യാവശ്യം എനിക്ക് ഇച്ചിരി അറിയാമെന്നുള്ളതല്ലാതെ വേറെ കൂടുതലൊന്നും എനിക്കറിയില്ല പിന്നെ തയ്യല് പഠിക്കാന് പോയ ഒരു സംഭവമെന്ന് പറഞ്ഞാല് എനിക്കാദ്യമായി എനിക്കൊന്നും ചെയ്യാനറിയില്ലായിരുന്നു തയ്ക്കാനുമറിയില്ലായിരുന്നു അതെങ്ങനെ അതിൽ മെഷീൻ്റകത്ത് പണിയണമെന്നൊന്നും എനിക്കറിയാതെ ചെന്ന് അത്യാവശ്യം നോക്കിയും കണ്ടും ചെയ്ത് തന്നെ അതുകൊണ്ട് അടിക്കാനൊക്കെയെ അടിക്കാൻ മാത്രം പഠിച്ചിട്ടേയുള്ളൂ അല്ലാതെ കൂടുതലൊന്നും എനിക്കറിയില്ല പിന്നെ ഈ എമ്പ്രോയ്ഡറി വർക്ക് തയ്ക്കാനൊക്കെയായിട്ടാണ് ആദ്യമായിട്ട് സ്കൂളുകളിൽ നിന്ന് ഞങ്ങളെ പഠിപ്പിച്ചത് സ്കൂളിലാണ് ആദ്യമായിട്ട് അത് പഠിപ്പിച്ചു തയ്ക്കാന് പൂ ഡിസൈൻ തയ്ക്കാനും പൂവ് തയ്ക്കാനുമൊക്കെ അങ്ങനെ പഠിച്ചു അതുകൊണ്ട് സ്കൂളില് ആദ്യമായിട്ട് പഠിപ്പിച്ചത് ഞങ്ങളുടെ ടീച്ചറാണ് പഠിപ്പിച്ചുതന്നത് പിന്നെ എന്താണ് പറയുന്നത് ഇതുപോലെ പൂവ് തയ്ക്കുക അതിന് ഇലകള് തയ്ക്കുക ഇലയൊക്കെ തയ്ക്കാൻ അതൊക്കെ നല്ല എളുപ്പമായിരുന്നു അതൊക്കെ പഠിച്ചിട്ടുണ്ട് ഞാന് പിന്നെ മറക്കാൻ പറ്റില്ലാത്തതെന്ന് പറഞ്ഞാല് സ്കൂളില് ടീച്ചര് തുണിയിലിങ്ങനെ ലൈൻ വരച്ചതായിരുന്നു അത് നമ്മള് അതുവഴി തയ്ച്ച് പഠിക്കുന്നു അത് തയ്ച്ച് അത് ചെയ്തുകഴിഞ്ഞപ്പോള് ഒത്തിരി നന്നായിട്ടാണ് ഞാൻ ചെയ്തത് അപ്പോള് അത് കണ്ടുകഴിഞ്ഞപ്പോള് ടീച്ചറിന് നല്ല സന്തോഷമായി ടീച്ചര് പറഞ്ഞു നന്നായിരിക്കുന്നുവെന്ന് പറഞ്ഞു അത് എനിക്കൊരു വലിയ സന്തോഷമായിരുന്നു അതെൻ്റെ ജീവിതത്തിലിതുവരെ എനിക്ക് മറക്കാൻ പറ്റിയിട്ടില്ല നല്ലൊരു എന്താണ് നല്ലൊരു നമ്മളൊരു കാര്യം ചെയ്തുകഴിയുമ്പോള് നമ്മളെ ആരെങ്കിലും അഭിനന്ദിക്കുകയൊക്കെ ചെയ്യുന്നത് നമുക്കൊരു സന്തോഷമാണല്ലോ എന്നു പറഞ്ഞതുപോലെ അതൊരു നല്ല സന്തോഷകരമായൊരു അവസ്ഥയാണെനിക്ക് അല്ലാതെ വേറെ നെയ്യുക നെയ്യുന്നതൊന്നും കണ്ടിട്ടുപോലുമില്ല നമ്മുടെ പ്രദേശത്തങ്ങനത്തെ ഒന്നുമില്ല പിന്നെ കൈത്തൊഴില് ഈ പേപ്പർ ബാഗ് അങ്ങനെയുള്ള ബായ്ഗ്കളോ അല്ലെങ്കില് ഈ മുത്തോ മുത്തുകള് മുത്തുകളൊക്കെ കോര്ത്ത് കമ്മലുണ്ടാക്കുന്നത് അങ്ങനത്തെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കൊച്ചു കൊച്ചു കൊച്ചുങ്ങളൊക്കെ കാണിക്കുന്നതും അങ്ങനെയൊക്കെയുള്ളത് കണ്ടിട്ടൊക്കെയെയുള്ളൂ അല്ലാതെ ഞാനതിലൊന്നും ഇടപെട്ടിട്ടൊന്നുമില്ല അത് പഠിപ്പിക്കാനൊന്നും ഇവിടെയെങ്ങും നമ്മുടെ ഇവിടെയൊന്നും അതിനുള്ള സൗകര്യങ്ങളൊന്നുമില്ല അതിനുള്ള സൗകര്യമൊക്കെ കിട്ടുകയാണെങ്കില് നല്ലൊരു കാര്യമാണ് ചെറിയൊരു തൊഴിലാകും നമുക്ക് പിന്നെ തയ്യല് പഠിക്കുന്നതിനോട് നല്ല താല്പര്യമുണ്ട് പിന്നെ എമ്പ്രോയ്ഡറി വർക്കുകളോ അതിനോടൊക്കെ എനിക്കിഷ്ടമാണ് അത് അത്യാവശ്യം ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഉടുപ്പുകൾക്ക് ബട്ടൺസ്സ് പിടിപ്പിക്കുക പൂവ് തയ്ച്ചുപിടിപ്പിക്കാൻ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് ഇതിനോടൊക്കെ താല്പര്യമുണ്ട് നല്ല ചെയ്യാനുമൊക്കെ ഇഷ്ടവുമുണ്ട് അല്ലാതെ നെയ്ത്ത് പരിപാടികളൊന്നും നമ്മുടെ പ്രദേശത്തൊന്നുമില്ല നെയ്ത്തിൻ്റെ മെഷിനില്ല ഇവിടെങ്ങും ആർക്കും അങ്ങനത്തെ ഒന്നും ആ ഏര്യാ ഒന്നും കണ്ടിട്ടുപോലുമില്ല നമുക്ക് പിന്നെ എന്താണ് പറയുന്നത് തയ്യലുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളിലാണ് അതിനോടേ ഉള്ളൂ അത്യാവശ്യം മെഷീനില് തയ്ക്കാനൊക്കെ അത്യാവശ്യം വെട്ടിക്കിട്ടുന്നത് തയ്ക്കാനറിയാം അങ്ങനെയൊക്കെയെയുള്ളൂ അല്ലാതെ കൂടുതലൊന്നുമറിയില്ല അല്ലാതെ വേറെ ഞാനാരെയും പഠിപ്പിച്ചിട്ടൊന്നുമില്ല എനിക്കാരെയും പഠിപ്പിക്കാനുള്ള അതൊന്നുമറിയില്ല പഠിപ്പിക്കാനൊന്നുമറിയില്ല അത്യാവശ്യം തയ്ക്കാനറിയാമെന്നല്ലാതെ അതിനോട് ഇപ്പോള് ഇന്നത്തെ ലോകത്തില് എല്ലാ എല്ലാ തൊഴിലുകളും സ്വയം തൊഴിലായിട്ട് പഠിച്ച് ചെയ്ത് പ്രവർത്തിക്കുന്നതാണ് ഏറ്റവും നല്ലത് അതുകൊണ്ടിന്ന് സ്വയം തൊഴിലെന്നൊക്കെ പറയുമ്പോള് ഇന്ന് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നാണെങ്കിലും കുറെ സഹായങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് സ്വയം തൊഴില് കണ്ടെത്തി അതിനെ പ്രോത്സാഹിപ്പിക്കാനൊക്കെ ഒരൂ പൈസകളൊക്കെ കൊടുക്കാനും ചെറിയ സംരംഭമായിട്ട് തുടങ്ങാനുമെല്ലാമുള്ള പരിശീലനങ്ങളുമൊക്കെ ഇന്നെല്ലാവരുടെയും ഭാഗത്ത് നിന്നുണ്ടാകുന്നുണ്ട് അത് ലഭിക്കുന്നത് നല്ലതാണ് കിട്ടുന്നവർക്കും അതുകൊണ്ട് കുറച്ച് ഉപകാരമൊക്കെയുണ്ടാകുമെന്ന് വിചാരിക്കുന്നു പിന്നെ ഇന്നിപ്പോള് എല്ലാം റെഡിമേയ്ഡ് വസ്ത്രങ്ങളൊക്കെയായത് കാരണമിന്ന് തയ്യലൊന്നും പഠിച്ചാലൊന്നും ഒത്തിരി മേന്മയൊന്നുമില്ല എല്ലാ സാധനങ്ങളും റെഡിമേയ്ഡായിട്ട് കിട്ടും ഉടുപ്പും ഏത് എല്ലാ വസ്ത്രങ്ങളുമുണ്ടിന്ന് റെഡിമേയ്ഡാണെല്ലാവരും കൂടുതലും എല്ലാവരും അതിനോട് താല്പര്യവും കാണിക്കുന്നു റെഡിമെയ്ഡാകുമ്പോള് ആർക്കും കൂടുതല് ചെലവില്ല കൂലി കൊടുക്കേണ്ട ബുദ്ധിമുട്ടേണ്ട സമയവും ലാഭം എല്ലാം എല്ലാ രീതിയിലും സമയമാണല്ലോ എല്ലാവർക്കും പ്രശ്നം അതുകൊണ്ട് സമയലാഭം നോക്കിയാണ് എല്ലാവരും അതുകൊണ്ട് ആ മേഖലയിലേക്കാണ് എല്ലാവരുടെയും താൽപ്പര്യം റെഡിമേയ്ഡിലേക്ക് അപ്പം എവിടെയെങ്കിലും നല്ലൊരു അത് ഒരാളുടെ കീഴിലിരുന്ന് തയ്ക്കാനാണെങ്കില് നല്ലൊരു ഇതിൻ്റെ ആൾക്കാരുമായി ഇടപെട്ട് അവരോട് താല്പര്യം കാണിച്ച് അവരോടുകൂടി തയ്ച്ച് വിൽക്കുന്ന ഒരു സ്ഥാപനമൊക്കെയായിട്ട് ബന്ധപ്പെടുകയാണെങ്കില് നമുക്കതൊരു ചെറിയൊരു വരുമാനമാർഗമായിട്ടൊക്കെ കണ്ടെത്തിപ്പോകാനായിട്ട് പറ്റും അത്രയൊക്കെയാണ് ഞാൻ നോക്കിയിട്ട് കാണുന്നുള്ളൂ ഓക്കേ